നമ്മുടെ ജില്ല മറ്റു ജില്ലയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് കാരണം ഇവിടെ വലിയ മലിനീകരണങ്ങൾ ഒന്നുമില്ല എല്ലാവരും വീടും പരിസരവും നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ കിണർ കുഴൽക്കിണർ ജലനിധി ജപ്പാൻ കുടിവെള്ളം പദ്ധതി അങ്ങനെ പല തരത്തിൽ സാധാരണക്കാർക്ക് കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ അലക്ഷ്യമായിട്ട് മാലിന്യം ഒന്നും ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കുകയില്ല പ്ലാസ്റ്റിക്കും പോലെയുള്ള സാധനങ്ങളൊക്കെ പഞ്ചായത്ത് നിന്നും എല്ലാ മാസവും വന്ന് എടുത്തുകൊണ്ട് പോവുന്നുണ്ട് അതുകൊണ്ട് കൂടുതലും നമ്മുടെ പരിസരങ്ങളെല്ലാം പ്ലാ പ്ലാസ്റ്റിക് മലിനീകരണം കൊണ്ട് നിറയുന്നില്ല പിന്നെ ഫാക്റ്ററി അതേപോലെയുള്ള വമ്പിച്ച ഫാക്ടറികളൊന്നും നമ്മുടെ ഇവിടെ വയനാട്ടിൽ കുറവാണ് അതുകൊണ്ട് നമ്മുടെ വയനാട് ഏറെ ഒരു നല്ലൊരു നിലപാടായിട്ട് തന്നെയാണ് പോവുന്നത് ഇതേപോലെ പരിസരം ആയാലും കൊതുക് ആയാലും വെള്ളം കെട്ടിനിൽക്കുന്നെങ്കിൽ അതൊക്കെ പറ്റുന്നതും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് അത് അതിനെപ്പറ്റി എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കാറുമുണ്ട് അതുപോലെ പഞ്ചായത്തിൽ നിന്നും ആയാലും മാസം എല്ലാ മാസവും വന്ന് എല്ലാം വേണ്ടത് പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കായാലും നല്ല താൽപര്യത്തിൽ നല്ല മുന്നോട്ട് ഇറങ്ങാനും രോഗങ്ങളിൽ നിന്ന് കുറയ്ക്കാനും ഏറെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെത്തന്നെയാണ് നമ്മുടെ ജില്ലയിൽ നിന്നും ഏറെ വ്യത്യസ്തമായി പറയാനുള്ള കാരണം